നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തില് മെയിൻ ആയിട്ട് വരുന്ന എന്ന് പറയുമ്പോൾ നമ്മുടെ കഥകളി കൂ കൂടിയാട്ടം നിഴൽ പാവക്കൂത്ത് പുൽപ്പാവ കൂത് തിരുവാതിര കളി അതുപോലെ എന്താ പറയുക അങ്ങനത്തെ നമ്മുടെ ന്യത്തം അതായത് ശാസ്ത്രീയ പരമായിട്ടുള്ള നൃത്തങ്ങള് നമ്മുടേ നമ്മുടെ സംഗീത പാരമ്പര്യം ഇതൊക്കെ നമുക്ക് ഒരുപാട് സാംസ്കാരികമായിട്ട് വളരെ മുന്നോട്ട് നിൽക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഓരോ ഘടകങ്ങളാണ് അതിലിപ്പോൾ നമ്മുടെ തിരുവാതിര കളി എന്ന് പറയുമ്പോൾ തിരുവാതിരക്ക് നമ്മുടെ വീട്ടിലെ അമ്മമാരും സഹോദരിമാരും അങ്ങനത്തെ എല്ലാവരും നല്ല അടി എന്താ പറയാ സെറ്റ് സാരിയും കാര്യങ്ങളൊക്കെ ഉടുത് ഒരു വിളക്ക് കത്തിച്ച് വെച്ച് അതിന് ചുറ്റും നിന്ന് നല്ല ഈണത്തോട്കൂടി പാട്ടു പാടി കൈകൊട്ടി കളിക്കുന്ന രീതിയിലുള്ളതാണ് നമ്മുടെ തിരുവാതിരക്കളി എന്ന് പറയുന്നത് പിന്നേ ഈ കഥകളി തോല്പാവക്കൂത്ത് അതൊക്കെ പറയണത് അമ്പലങ്ങളിലാണ് മെയിൻ ആയിട്ട് നമ്മൾ കാണപ്പെടാറ് പിന്നെ ഈ പ്രതേകപരമായിട്ടുള്ള പരുപാടികൾക്കും അങ്ങനത്തെ കാണാറുണ്ട് പിന്നെ തിറയാട്ടം അങ്ങനത്തെ കുറെ വെറൈറ്റി ആയിട്ടുള്ള എന്താ പറയാ സാംസ്കാരിക പരിപാടികൾ നമ്മൾ കേരളത്തിൽ കണ്ട് വരുന്നുണ്ട്